ഇരുപത്തിനാല് മാര്ച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴില് ഞാനൊരു പ്ലേ സ്റ്റേഷന് ഓഡ്രെയ്തിരിന്നു അപ്പോള് അതെനിക്കിപ്പോള് വാങ്ങാന് താല്പ്പര്യമില്ല കാരണം കാരണമെന്താണെന്നു വച്ചുകഴിഞ്ഞാല് എന്താണ് പ്ലേ സ്റ്റേഷന് ഫൈവ് വേറെ അനിയന് ഗള് ചേട്ടന് ഗള്ഫീന്ന് കൊണ്ടുത്തന്നു അപ്പോള് എന്താണ് അത് വന്ന അത് വന്നശേഷം അതുകൊണ്ടെനിക്ക് ഇപ്പോള് ഇപ്പോള് പ്ലേ സ്റ്റേഷന് ഫൈവ് ഓഡ്രെയ്യാൻ താല്പ്പര്യമില്ല അതോണ്ടന്നെ എനിക്കത് റദ്ദാക്കണം ഓഡ്റ് റദ്ദാക്കാനുള്ള ഡേറ്റും സ കാലും കൊടുത്തിട്ടുണ്ട് ഇത്ര എമൗണ്ടാ ഓണ്ലൈന് വഴി അടച്ചിരിക്കുന്നത് അതായത് ഇരുപത്തിയേഴായിരം രൂപ ഓട്ര് എമൗണ്ട് വഴി അയച്ചിട്ടുണ്ട് അപ്പോള് അതൊന്ന് റീഫണ്ടെയ്യണം എന്ന് അഭ്യര്ഥിക്കുന്നു